ഒരു മനുഷ്യ പ്രതിമ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഏറ്റവും ബുദ്ധിമുട്ടായി ഉണ്ടായിരുന്ന കാര്യം എന്നു പറയുന്നത് അതിന് വേണ്ട കളിമണ്ണ് ശേഖരിക്കുന്ന ആണ് കളിമണ്ണ് ശേഖരിക്കാൻ വേണ്ടി ഞാൻ കുറെ ദൂരം പോയി വയലിൽ തപ്പി അവിടെനിന്ന് കളിമണ്ണ് ശേഖരിച്ചു കൊണ്ടുവന്നിട്ടാണ് ഈ പ്രതിമ ഉണ്ടാക്കിയിരുന്നത്